ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് ഗതാഗത വ്യവസ്ഥ സാങ്കേതിക വിദ്യയാണ് വിദ്യകളിലുണ്ട് അതായത് ബസുകള് ട്രെയിനുകള് ഫ്ലാറ്റുകള് ഗതാഗത്തിന് ഉപയോഗിക്കുന്ന ആപ്പുകള് ടിക്കറ്റ് ബുക്ക് ചെയ്യല് ട്രെയിനുകളുടെ സ്റ്റാറ്റസ് പരിശോധിക്കല് ഫാസ്ട്രാക്ക് ഓണ്ലൈൻ ആയിട്ട് ലൈസന്സ് എന്നിവ ഒത്തിരി ഒത്തിരി കാര്യങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഉള്ളത് അത് നമ്മുടെ സമൂഹങ്ങളിലുള്ള ആള്ക്കാര്ക്ക് അതായത് ജനങ്ങള്ക്ക് അവര്ക്ക് ഒത്തിരി കാര്യങ്ങൾ അവര്ക്ക് ചെയ്യാന് പറ്റുന്നുണ്ട് അവർ അതിന് വേണ്ടി അവർ മുന്കൈ എടുക്കുന്നുണ്ട് പൈസയുടെ കാര്യത്തിനായിക്കോട്ടും അല്ലെങ്കില് സമയത്തിന്റെ കാര്യത്തോളം ഇത് വളരെ ഉപകാരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് നമ്മൾക്കുള്ളത് സോഷ്യലായിക്കോട്ടെ സാമൂഹികമായിട്ടും അല്ലാതെയും നമ്മൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഇതിനെ ചെയ്യാനും എടുക്കാനും ഒക്കെ പറ്റുന്നുണ്ട് എല്ലാത്തിനും ഇത് വളരെ വളരെ അധികം വളരെയധികം നാകുലികമായി ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് സാങ്കേതികവിദ്യ വിദ്യകളിൽ ഒത്തിരി ഒത്തിരി മാറ്റങ്ങളാണ് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത് അത് എല്ലാത്തിനും മുന്കൈ എടുക്കുന്ന ഓരോ ഓരോ കാര്യങ്ങള്ക്കും അതിന്റെ വിശദാംശങ്ങള്ക്കും ഒക്കെ അതിനാല് തന്നെയുണ്ട് അതുപോലെ തന്നെ ബസുകള് അതായത് നമുക്ക് എത്ര എവിടെ എങ്കിലും പോകണമെ ങ്കില് തന്നെ നമ്മൾക്ക് പെട്ടെന്ന് നമ്മൾക്ക് ബസ് ആയിക്കോട്ടെ അല്ലെങ്കില് ട്രെയിൻ ആയിക്കോട്ടെ നമ്മൾക്ക് പെട്ടെന്ന് അതിനെ നമ്മൾക്ക് കണ്ടെത്താന് കഴിയും അതായത് ഈ ഒരു ആപ്പ് വഴി നമ്മൾക്ക് ആപ്പുകളൊക്കെ കൊണ്ട് ആപ്പ് വഴി നമ്മൾക്ക് ഇത് ചെയ്യാന് പറ്റുന്നുണ്ട് പിന്നെ എല്ലാത്തിനും പിന്നെ എല്ലാത്തിനും നമ്മൾക്ക് ഓണ്ലൈൻ ആയിട്ട് തന്നെ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളുമെടുക്കാന് പറ്റുന്നുണ്ട് അതു എത്ര അത് വളരെ ഉപകാരപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് ബസുകളായിക്കോട്ടെ ട്രെയിനുകൾ ഫ്ലൈറ്റുകൾ ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന ആപ്പുകൾ ടിക്കറ്റ് ബുക്ക് ചെയ്യൽ ബസുകൾ ട്രെയിനുകൾ ഫ്ലൈറ്റുകള് ഗതാഗതത്തിന് ഉപയോഗിക്കുന്ന നമ്മൾക്ക് അതായത് ഈ ഗതാഗത്തിന് ഉപയോഗിക്കുന്നത് ഒത്തിരി നമ്മൾക്ക് ആപ്പുകൾ നമ്മുടെ നമൂടെ ഫോണിൽ ആയിക്കോട്ടെ എല്ലാ നമ്മുടെ സാമൂഹികപരമായിട്ടുള്ള ഒത്തിരി നമ്മൾക്ക് ആപ്പുകളാണ് നമ്മൾക്ക് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അപ്പം അത് എല്ലാ അത് അതെല്ലാം നമ്മൾക്ക് ഉപകാരപ്പെട്ട ഒരു കാര്യം തന്നെയാണ് പിന്നെ ട്രെയിനിൽ ആയിക്കോട്ടെ നമ്മൾക്ക് ട്രെയിന് ബ്രുക്ക് ചെയ്യണമെങ്കിൽ തന്നെ നമ്മൾക്ക് അത് ആപ്പുണ്ട് ആപ്പ് വഴി നമ്മൾക്ക് അത് ട്രെയിന് ബുക്ക് ചെയ്യുകയും അതുപോലെ തന്നെ നമ്മൾക്ക് അത് റിസര്വേഷനും എല്ലാ കാര്യങ്ങളും അതില് ചെയ്യാന് തന്നെയുണ്ട് ടിക്കറ്റ് ബുക്ക് ചെയ്യല് ട്രെ